ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം എന്നു പറയുന്നത് വണ്ടി ഓടിക്കുന്നതാണ് അത് ആ തൊഴിൽ ആ തൊഴിൽ തിരഞ്ഞെടുക്കാൻ കാരണം ഏതൊരു മേഖലയിലും ഇന്നു വണ്ടി ഇല്ലാത്ത ഒരു ജോലി നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഒരു ആംബുലൻസ് ഡ്രൈവർ ആയിക്കോട്ടെ അവിടെയും അയാളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് എത്രയും വേഗം ഒരു രോഗിയെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ എൻ്റെ ഹസ്ബൻ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ വരുമാനം എന്നു പറയുന്നത് ടിപ്പർ ഓടിച്ചു കിട്ടുന്ന ഉപജീവിതം ഉപജീവനം ആണ് ഞങ്ങൾക്ക് അത് എത്രയോ വീടുകൾ പണിയാൻ വേണ്ടി അതിൽ ഈ ഞങ്ങളുടെ വണ്ടിയിൽ എത്രയോ വീടുകളിലേക്ക് ആവശ്യമുള്ള മെറ്റല് സിമൻ്റ് പലവിധ അങ്ങനത്തെ പല സാധനങ്ങളും ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമായി അത് ഓരോ വീടുകളിലേക്ക് ആവശ്യാനുസരണം ഞമ്മൾ എത്തിക്കുന്തോറും അവരിലുള്ള ഒരു കാഴ്ചപ്പാട് എന്ത് എത്രയോ വേഗം അവരുടെ ഭവനം അല്ലെങ്കിൽ അവർ പണിയാൻ ഉദ്ദേശിക്കുന്ന ഓരോ ഓരോ വസ്തുക്കളും എത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നു അതുപോലെ ഒരു ഡൈവർ എന്നു പറയുന്നത് അഭിമാനമുള്ള ഒരു കാര്യമാണ് കാരണം ഈ ഡ്രൈവർ ഇല്ലാത്ത ഒരു ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇന്നത്തെ കാലം അനുസരിച്ച് ഏതൊരു മേഖലയിൽ കൂടി ആണെങ്കിൽ പോലും ഒരു ടു വീലർ ഓടിക്കാൻ പോലും അറിയാത്ത ഒരു മനുഷ്യരില്ലാത്ത നാടാണ് ഇന്ന് ഒട്ടനവധി ആൾക്കാറിപ്പോൾ ഒന്നുങ്കിൽ ടു വീലർ അല്ലെങ്കിൽ ഫോർ വീലർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഹെവി വാഹനങ്ങൾ ഉപയോഗിച്ചു ഉപജീവന മാർഗ്ഗം പട്ടിണിയിൽ നിന്നും വിശപ്പിൽ നിന്നും അവരവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഓരോ വ്യക്തിക്കും ഓരോ വാഹനം ഓടിക്കുന്നു ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം എന്നു പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന വണ്ടി ഓടിച്ച് ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മഹത്തായ കുടുംബം ആണ് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം വണ്ടിയോടിക്കുക അതായത് ഏത് വണ്ടിയുമാകട്ടെ അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല മുന്നേറ്റത്തോടെ പോവുകയാണ് ഞങ്ങടെ ലക്ഷ്യം